മലയാളികൾക്ക് അവരുടെ ഭാഷ ഭയങ്കര മാനസികമായി അടുപ്പമുള്ളൊരു കാര്യമാണ് അവരവരുടെ സകല വികാരങ്ങളും ദേഷ്യമായിക്കൊള്ളട്ടെ സങ്കടമായിക്കൊള്ളട്ടെ വിഷമമായിക്കൊള്ളട്ടെ സന്തോഷമായിക്കൊള്ളട്ടെ അവർ മലയാളത്തിലൂടെ തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നാൽ ദേശത്തിനനുസരിച്ച് സ്ഥലങ്ങൾക്കനുസരിച്ച് ഭാഷയിലെ ശൈലികളിലേറ്റക്കുറച്ചിലുണ്ടെന്നുള്ള കാര്യം പ്രത്യേകമെടുത്തു പറയണമല്ലോ തിരുവനന്തപുരത്ത് ഉള്ള ശൈലി അല്ല തിരുവനന്തപുരം ജില്ലയിൽത്തന്നെ പല സ്ഥലത്തുമുള്ളത് തൃശ്ശൂരും കൊല്ലത്തും പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും അതു പോലെ കൊള്ള മധ്യ കേരള സ്ഥലങ്ങളിലൊക്കെ പല ഭാഷകളാണ് പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ തന്നെ വേറെ വേറെ ശൈലിയിലുള്ള ഭാഷാ പ്രയോഗങ്ങളാണ് നിലനിൽക്കുന്നത് വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ കാസർഗോഡ് വളരെയധികം മലയാളത്തിൽ നിന്നു വ്യത്യസ്തമായ രീതിയിലാണ് അവരുടെ ശൈലികൾ പ്രകടിപ്പിക്കുന്നത് എന്നാൽ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഭാഷയുടെ ഘടനയിലും വാക്കുകളുടെ അർത്ഥങ്ങളിൽപ്പോലും പലപ്പോഴും വ്യത്യാസം വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു വടക്കൻ ജില്ലകളിൽ ഉപയോഗിക്കുന്ന ചില നല്ല വാക്കുകളെന്നവർ കരുതുന്ന വാക്കുകൾ തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് കൊല്ലം തിരുവനന്തപുരം ജില്ലയിൽ വലിയ ചീത്തയായിട്ടൊക്കെ വരുന്നത് ആളുകൾ തമാശ രൂപേണ പങ്കുവെക്കാറുള്ള കാര്യമാണ് കൂടുതലും അച്ചടി ഭാഷയോടു ചേർന്നു നിൽക്കുന്നത് ഇടുക്കി പത്തനന്തിട്ട കോട്ടയം ജില്ലകളിൽ സംസാരിക്കുന്ന ഭാഷയാണ് പ്രിൻറ്റഡ് മലയാളമായി പലപ്പോഴും പുറത്തു വരുന്നത് അതിനു കാരണം കേരളത്തിലെ ആദ്യത്തെ അച്ചടി സ്ഥാപനങ്ങളെല്ലാം പ്രസ്സുകളെല്ലാം ഈ മധ്യ കേരളത്തിലായിരുന്നു എന്നതു കൊണ്ടു തന്നെയാണ് ഉച്ഛാരണ ശുദ്ധിയും പലപ്പോഴും ഭാഷ വടിവുമൊക്കെ ഒത്ത രീതിയിൽ ഓരോരുത്തരും എഴുതുമെങ്കിലും സംസാര ഭാഷയിലാണ് ഈ ശൈലികളിലെ വ്യത്യാസം പ്രകടമായി കാണാറുള്ളത് അച്ചടി ഭാഷ കേരളത്തിൽ പൊതുവേ ഒരേ നിലവാരത്തിലുള്ളവയും ഒരേ അർത്ഥത്തിലുള്ളവയും ആണെന്നു കാണാൻ സാധിക്കും എന്നാൽ പ്രാദേശിക ഭാഷകളിലെഴുതിയിരുന്ന പല എഴുത്തുകാരും നമുക്കുണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ അതിന് നല്ലൊരു ഉദാഹരണമാണ്